പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്